എൻ്റെ വീട്ടില് അടുക്കളയില് ഞാൻ ജോലി ചെയ്യുമ്പം ജോലി ഭാരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പാട്ട് കേൾക്കുക എന്നുള്ളത് ജോലി തീരുന്നതുവരെ ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കും പാട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കും ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ജോലിയുടെ ഭാരവും അറിയത്തുണ്ടാവില്ല പെട്ടെന്ന് തന്നെ പണിയും തീരും അത് ഒരു പ്രത്യേക രസമാണ് അതങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതില് തന്നെ ലയിച്ചിരിക്കും പക്ഷെ നമ്മുടെ കാര്യങ്ങള് നടക്കുകയും ചെയ്യും നമ്മുടെ ജോലി ഭാരം നമുക്കധികം അറിയാൻ സാധിക്കില്ല എൻ്റെയൊക്ക ചെറുപ്പത്തില് ഞാൻ കണ്ടിട്ടുണ്ട് വയലിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നാടൻ പാട്ടുകള് പാടിയിട്ട് വയലില് പണിയെടുക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഈ തടിപിടിക്കാനൊക്കെ ആൾക്കാര് വരുന്ന സമയത്ത് അവരൊരു പ്രത്യേക തരത്തിലുള്ള താളം ഉണ്ടാക്കിയിട്ടാണ് അവര് ആയാസം കുറയ്ക്കുന്നത് അത് ഈ ഭാരമുള്ള ജോലികള് ചെയ്യുന്ന സമയത്ത് ഇതുപോലെതന്നെ ഒരു ശബ്ദ അല്ലെങ്കിൽ പാട്ട് ഹോയ് ഹോയ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ആ ഭാരത്തിൻ്റെ ആ ഒരു ആയാസം കുറയും അവരുടെ ജോലിയുടെ അവർക്ക് എളുപ്പത്തില് ചെയ്യാൻ പറ്റും അവര് അവര് വേറെ അവരെ മനസ്സ് വേറെ രീതിയിലേക്കു മാറുന്നതുകൊണ്ട് അവർക്ക് അത്രേയും ഭാരം അവരറിയുന്നില്ല ഈ നാടൻ പാട്ടുകൾ പാടി പണിയെടുക്കുന്ന ആൾക്കാരും അങ്ങനെതന്നെയാണ് അവരുടെ ജോലിയുടെ വെയിലത്തു നിന്ന് തളർന്ന് കഷ്ടപ്പെടുന്നതിൻ്റ ആയാസം പകുതിയും അവർക്ക് ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും